ഞാന് താമസിക്കുന്നതിന് അടുത്ത് കാവാലം എന്നൊരു സ്ഥലം ഉണ്ട് അവിടെ പാടവും മനോഹരമായ ആറും ഒക്കെയുണ്ട് അവിടെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമാണ് അവിടെ ആ പാടത്തിന്റെ ഒരു പ്രത്യേകതയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ആമ്പല് പാടമാണ് അവിടെ ചുമന്ന കളറിലുള്ള ആമ്പല് ഇഷ്ടം പോലെ പട്ടു വിരിച്ച പോലെ കിടക്കുന്നത് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരു വിനോദസഞ്ചാരത്തിന് ഒരു സാധ്യത കണ്ടു കൊണ്ട് തന്നെ അവിടെ ഒരുപാട് ആളുകൾ ബജിക്കടകളും അതുപോലെ ഐസ്ക്രീം പാര്ലറുകളും നാലുമണി കച്ചവടക്കാരും ഒക്കെ ഒരുപാട് പേർ അവിടെയുണ്ട് അപ്പോൾ അതൊക്കെ നല്ല കച്ചവടം നടക്കുന്നുമുണ്ട് എങ്കിലും വിനോദസഞ്ചാരികള്ക്ക് അത് വലിയ രീതിയില് അറിയത്തില്ലെങ്കിലും ഈ നാട്ടിലുള്ള ഒരുപാട് ആള്ക്കാര്ക്ക് അത് പ്രയോജനമായിട്ട് തീരുന്നുണ്ട് കാരണം മെന്റലി ഒരു റിലാക്സ് ചെയ്യാനും നാലുമണിക്ക് നടക്കാനും പിള്ളേര്ക്ക് ഒരു സന്തോഷത്തിനുമൊക്കെയായിട്ട് ഒരുപാട് ആളുകൾ അവിടെ വരാറുണ്ട് അത് വിനോദസഞ്ചാരികള്ക്ക് വളരെ ഇഷ്ടമാകുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒന്നും കൂടെയൊന്നു വലുതാക്കിയാൽ ഒരുപാട് ആളുകള്ക്ക് അവിടെ കാണാനും അതുപോലെ തന്നെ പുറത്തു നിന്നൊക്കെയുള്ള വിദേശികള്ക്ക് അവിടെ അതിന്റെ മനോഹാരിത കാണാനായിട്ടൊക്കെ ഒരുപാട് സാധ്യതയുള്ള സ്ഥലമാണ് അത് അതുപോലെ തന്നെ ഞാന് താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഇടവക പള്ളിയാണ് യൂദാപുരം യൂദാപുരം യൂദാശ്ലീഹയുടെ പള്ളിയാണ് അതിനൊരു പിന്നിൽ ഒരു കഥയുണ്ട് ഇവിടെ ഈ ഇടവകയിൽ തന്നെയുള്ള ഒരു അച്ഛനാണ് ഫാദര് ജോസ് ആലഞ്ചേരി എന്നു പറയുന്ന ആൾ ആ അച്ചന് വര്ഷങ്ങള്ക്കു മുന്നെ കാനഡയില് പോകുകയും അവിടെ അവിടുത്തെ രോഗികള്ക്കും അതുപോലെ അവിടുത്തെ കള്ളുകുടിയന്മാര്ക്കും ഒക്കെ ഡീഅഡിക്ഷന്റെ ൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നന്മകള് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു അച്ചനാണ് ആ അച്ചനു ഒരു സുപ്രഭാതത്തിൽ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അച്ചനു ദര്ശനം ലഭിക്കുകയാണ് യൂദാപുരം എന്ന മുളക്കാന്തുരുത്തി എന്ന ഈ സ്ഥലത്ത് ഈ സ്ഥലത്തിന്റെ പേര് മുളക്കാന്തുരുത്തി എന്നാണ് ശരിക്കും മുളക്കാന്തുരുത്തി എന്ന സ്ഥലത്ത് ഒരു പള്ളി പണിയണമെന്നും അത് യൂദാശ്ലീഹയുടെ നാമത്തില് ആയിരിക്കണമെന്നും അത് അതിന് ആ സ്ഥലത്തിനു യൂദാപുരം എന്ന പേര് ഇടണമെന്നും അച്ചനു ദര്ശനം ലഭിച്ചു അച്ചന് ആ ഉറക്കത്തില് ഞെട്ടി എഴുന്നേറ്റു വന്നാണ് അച്ചന് പറയുന്നത് അതുപോലെ തന്നെ യൂദാപുരത്തിന്റെ ഒരു പ്രത്യേകതയെന്നു പറഞ്ഞാൽ അച്ചന്റെ അച്ചന് പറയുന്നത് പീഡാനുഭവ ഈശോടെ പീഡാനുഭവത്തിന്റെ പതിനാല് സ്ഥലങ്ങൾ അവിടെ കൊത്തി വയ്ക്കണമെന്നായിരുന്നു രൂപ രൂപത്തില് കൊത്തി വയ്ക്കണമെന്നായിരുന്നു അച്ചനു ദര്ശനം ലഭിച്ചത് അച്ചന് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ആ പള്ളി വളരെ മനോഹരമായിട്ട് ഇപ്പ കൊണ്ട് പോകുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേര് ബസ്സ്റ്റോപ്പ് പോലും യൂദാപുരം എന്നാണ് അങ്ങനെയാ ഇടവകയ്ക്കും ബസ്സ്റ്റോപ്പിനും യൂദാപുരം എന്ന പേര് ഇപ്പം നെലവില് പോകുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഈ പ്രദേശത്തെ കാവാലമെന്ന മനോഹരമായ ആ സ്ഥലത്ത് ഷൂട്ടിങ്ങുകള് ഒരുപാട് നടന്നിട്ടുണ്ട് അതായത് കണ്ണെഴുതി പൊട്ടും തൊട്ട് സ്പടികം പിന്നെ അതുപോലെ ഒരുപാട് സിനിമകള് അവിടെ നടന്നിട്ടുണ്ട് അപ്പ അതുപോലെ ഷൂട്ടിങ്ങിന്റെ ഒരു പോയിന്റും കൂടിയാണ് ആ സ്ഥലം ഇവിടെ പിന്നെ അച്ചനു മറ്റൊരു ദര്ശനം ലഭിച്ചത് ഡീഅഡിക്ഷന് സെന്റെർ ഇവിടെ സ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു അത് തുരുത്തി തന്നെ വേണമെന്നും തുരുത്തിയിലെ പാവപ്പെട്ട മനുഷ്യര്ക്ക് ഇവിടെ ഒരുപാട് കള്ളുകുടിയന്മാരും അതുപോലെ മാനസികമായ ഡിപ്രഷന് ഉള്ളവരും ഒക്കെയുണ്ട് അപ്പം അവര്ക്കായിട്ട് ഒരു ഡീഅഡിക്ഷന് സെന്റെര് സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു അച്ചനു അടുത്ത ദര്ശനം ലഭിച്ചത് പള്ളി പണിതത്തിനു ശേഷമാണ് ആ ദര്ശനം ലഭിക്കുന്നത് അച്ചനങ്ങനെ ഇവിടെ എന്നുള്ള ഒരു വലിയ ഡീഅഡിക്ഷന് സെന്റെർ സ്ഥാപിക്കാനായിട്ട് അച്ചന് ഒരുപാട് ബുദ്ധിമുട്ടി അത് ഈ മെയിന് റോഡില് തന്നെയാണ് കോട്ടയത്തിനു പോകുന്ന മെയിന് റോഡില് ചങ്ങനാശ്ശേരി കോട്ടയം റോഡിലുള്ള സ്ഥലത്താണ് ആ കാന സ്ഥിതി ചെയ്യുന്നത് അവിടിപ്പോള് ഒരുപാട് രോഗികള്ക്ക് ആശ്വാസം ലെഭിക്കുന്നുണ്ട് അവിടെ കൊറേ അച്ചന്മാരും കന്യാസ്ത്രീകളും ഒക്കെക്കൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണത് അങ്ങനെ വലിയൊരു സ്ഥാപനമായത് ഇപ്പോഴും വര്ക്ക് ചെയ്തോണ്ടിരിക്കുന്നു